മത്സരങ്ങളില് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പഴും പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണ് നമുക്ക് നമ്മുടെതായ കുറേ സംഘടനകളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ അതായത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ക്ഷേമത ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് സംഘടനകൾ ഒണ്ട് അപ്പോൾ ഈ സംഘടനകൾ നടത്തുന്നത് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ട് അത് എല്ലാ മാസവും ഉണ്ടാവും പിന്നെ നമുക്ക് ഓരോ ദിവസങ്ങൾ ഉണ്ടല്ലോ ഈ പരിസ്ഥിതി ദിനം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതില്ലേ അപ്പോൾ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഇതിൽ സെഗ്മെന്റിൽ ഇപ്പം ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ എന്താണ് ആ കാണുന്നത് അപ്പോൾ ഡെയിലി ലൈഫ് എന്ന് പറയുമ്പം അത് അതിൽ വരുന്നത് ഒരു ഒരു ജീവിതം ഡെയിലി എല്ലാ ദിവസവും തുടര്ന്നു പോകുന്ന ഒരു ജീവിതം അതിനെ പറ്റിയിട്ടുള്ളൂ ഒരു ഫോട്ടോ നമ്മള് എന്താണ് കാണുന്നത് അത് നമ്മൾ ക്യാപ്ച്ചര് ചെയ്യുന്നു നമ്മൾ ആ ഫോട്ടോ അത് അവര്ക്ക് അയച്ചു കൊടുക്കുന്നതും പിന്നെ അത് സെലക്ഷന് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെലക്ഷന് ചെയ്യുന്നത് ഈ ഫോട്ടോ എടുക്കുന്ന ഓരോ ആങ്കിളും അല്ലെങ്കില് ഈ ഫോട്ടോയ്ക്ക് ഓരോ ഈ ഫോട്ടോ ഇതിനു ഓരോ രീതികളുണ്ട് അതായത് ഫോട്ടോയുടെ അളവ് അല്ലെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് സെന്ട്രല് ആയിരിക്കണം അങ്ങനെ പറഞ്ഞ ഒരു ഒരുപാട് രീതികളുണ്ട് അപ്പം റൂള് ഓഫ് തേര്ഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ നടക്കുന്നത് ഈ റൂള് ഓഫ് തേര്ഡ് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലും അതിന്റെ പ്രൈസ് പ്രൈസ് തീരുമാനിക്കുന്നതും അതിലാണ് അങ്ങനെ അതിന്റെ ഈ ഫോട്ടോഗ്രാഫിയുടെ അതായത് നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന ഫോട്ടോയുടെ ഓരോ ഓരോ സൈഡില് നിന്നും അതിനെ അതിന്റെ ജഡ്ജസ് കറക്റ്റ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുകയും പിന്നെ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതലും ഒരാൾക്ക് ഒരു മൂന്ന് എന്ട്രി വരെ അയക്കാന് സാധിക്കും അപ്പോൾ ഈ മൂന്നു എന്ട്രിയിലും നമ്മൾ നമ്മൾ എടുക്കുന്നത് അതിനകത്ത് എഡിറ്റിംഗ് പറ്റത്തില്ല നമ്മൾ ഇപ്പം ക്യാമറയില് സെറ്റിംഗ്സ് ഒരുപാട് ഉണ്ടല്ലോ ക്യാമറയിലെ സെറ്റിംഗ്സ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് പല രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് അത് എഡിറ്റിങ്ങിലൂടെ അത് ഫോട്ടോ മാറ്റി നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം പക്ഷെ അതിനെയെല്ലാം നമ്മൾ അതെല്ലാം റിജക്റ്റ് ആകും നമ്മൾ എടുക്കുന്ന റോ ഫയല് അതുപോലെ തന്നെ അവർ പറയുന്ന അളവിൽ അതിപ്പം സെന്റീമീറ്ററിലാവാം മറ്റേ ഇഞ്ച് അളവ് ആകാം അങ്ങനെ അവർ പറയുന്ന അളവിൽ ആ ഫോട്ടോ ക്യാപ്ചര് ചെയ്ത് അപ്പോൾ അതിനെ വളരെ മനോഹരമാക്കി തന്നെ നമ്മൾ അവര്ക്ക് അയച്ചു കൊടുക്കുകയും അപ്പോഴ് ഇപ്പം അഞ്ചുപേർ ആറുപേർ അടങ്ങുന്ന ഒരു പാനൽ ആയിരിക്കാം ജഡ്ജിങ്ങളിൽ ഇരിക്കുന്നത് അവർ അതിനെ വിലയിരുത്തി ആ ഫോട്ടോയ്ക്ക് എന്താണ് കോളിറ്റി അപ്പോൾ നമ്മൾ ചെലപ്പം പല ആള്ക്കാരുടെ ഇമോഷന്സ് ആവാം മത്സരത്തിന് വിജയിക്കുന്നത് ഈ ഈ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ നമ്മൾ ഇപ്പം എന്നും കാണുന്ന ഒരാൾ സാധാരണ ഒരാൾ ചെന്ന് ഒരു കട തുറക്കുന്നത് തന്നെ ഡെയിലി ലൈഫാ അപ്പോൾ നമ്മൾ അതിനെ ഒരു ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇപ്പം അയച്ചു കൊടുക്കുക അത് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാ അതിനെ ഡെയിലി ലൈഫ് ആയിട്ട് കൂട്ടാന് പറ്റും അപ്പോൾ അത് ആ ഫോട്ടോ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് അയച്ച് കൊടുത്തത് കൊണ്ട് ഒരു കാര്യവും ഇല്ല ആ ഫോട്ടോ ജഡ്ജസ് നോക്കുമ്പോൾ അതിനു അവർ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ചെലപ്പം അതിന്റെ ആങ്കിള് ഇങ്ങനെയായിരിക്കണം എന്നായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ ആ ഫോട്ടോ ഒരു അളവ് കാണും ഈ ഈ കറക്റ്റ് അളവിന് അല്ലെങ്കിൽ കറക്റ്റ് റെസല്യൂഷനിലോ ആയിരിക്കണം ഈ ഫോട്ടോ അതാണ് കൂടുതലും നോക്കുന്നത് പിന്നെ ഓരോ ആള്ക്കാരുടെയും ഫ്രെയിം കമ്പോസിങ്ങ് ഈ ഫ്രെയിം കമ്പോസിങ്ങ് പല ആള്ക്കാരും പല രീതിയിലാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പം സ്ട്രെയിറ്റ് ഒരു ഫോട്ടോ എടുത്തു ഈ സ്ട്രെയിറ്റ് എടുക്കുന്ന ഫോട്ടോ തന്നെ ഒരാൾ സൈഡീന്ന് എടുക്കുമ്പോൾ അതിന്റെ വിഷ്വല് തന്നെ മാറും നമ്മൾ കാണുന്ന രീതി തന്നെ മാറും അതുകൊണ്ടാണ് പറയുന്നത് പല ആള്ക്കാരും പല രീതിയിലാണ് കാണുന്നത് ഒരു ഫ്രെയിമിനെ തന്നെ പല ആൾക്കാരും പല രീതിയിലാണ് കാണുന്നത് ഈ ഇങ്ങനെ പലരീതിയിൽ കാണുമ്പം പല പിക്ച്ചേഴ്സിനെ നമുക്ക് ഒറ്റ ഇതിൽ ഒറ്റ ഇതിൽനിന്ന് പല ഫോട്ടോസിനെ നമുക്ക് കൊണ്ട് വരാന് സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഉള്ളതില് ഏറ്റവും ബെസ്റ്റ് ഉള്ളതില് ഏറ്റവും ബെസ്റ്റിന് തന്നെ സമ്മാനം കിട്ടും പിന്നെ അത് നല്ല പ്രൈസ് ആയിരിക്കാം ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ അങ്ങനെ ഒരുപാട് ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട്